രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി നാല് രണ്ട് ആറ് രണ്ടായിരത്തി ഒന്ന് ഇരുപത് മൂന്ന് രണ്ടായിരം ഇരുപത്തിരണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന്